കൊടുമ്പ് സുബ്രമണ്യ ക്ഷേത്രത്തിലേക്ക് ആ അത് തന്നെ അത് തന്നെ

ഇവിടുന്ന് എത്ര ദൂരമുണ്ടാവും

അവിടെ നട തുറക്കുന്നതിനുള്ളിൽ എത്തണം അല്ല അല്ല

ഞാൻ വരുന്നത് കോട്ടായിയിൽ നിന്ന് കുറേ നാളായിട്ടോ ഈ വണ്ടിയോട്ടം തുടങ്ങിയിട്ട്

അവിടെ എത്ര മണിക്കാണ് നട തുറക്കുക

തിരക്കൊക്കെ ഉണ്ടാവുമോ അവിടെ അമ്പലത്തിൽ

അവിടെ അന്നദാനം ഒക്കെ ഉണ്ടാവുവോ

ആ അവിടെ മെയിൻ ഉൽസവം ഉണ്ട്

അവിടെ താമസ സൗകര്യമൊക്കെ എങ്ങനെയാണ് ആ എത്രയാവും സാദാ ഒക്കെ ആവുമ്പോൾ

ഹോട്ടൽ ഫുഡ്ഡോ

ഹോട്ടലിൻ്റെ സർവീസ് ചാർജ് ഒക്കെ എത്രയാണ്

ആ

ഓക്കേ